പാലക്കാട് ജില്ലയിലെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള സംവിധാനങ്ങള് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു പുരോഗമനം ഉള്ളൊരു ജില്ലയാണ് പാലക്കാട് പാലക്കാട് മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ അത്യാവിശ്യം മറ്റ് സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഏകദേശം ഒരു വിധം എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ലഭ്യമാണ് ഞാനൊരിക്കലും പറയുന്നില്ല മുഴുവനായിട്ടും സേവനങ്ങൾ ലഭ്യമാകുമെന്ന് അത്യാവശ്യമുള്ള സേവനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അവിടത്തെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലോട്ട് ഒരുപാട് പാലക്കാട് നിന്നും ഒരുപാട് ആളുകൾ അവിടെ പോകുന്നുണ്ട് പിന്നെ പാലക്കാട് ഒരുപാ പാലക്കാട് ജില്ലാ ആശുപത്രിയുണ്ട് അതുപോലെ കുഴൽമന്നം ആശുപത്രിയുണ്ട് സർക്കാർ ആശുപത്രിയുണ്ട് അങ്ങനെ സർക്കാർ ആശുപത്രികള് പാലക്കാട് ഒരുപാടുണ്ട് അവരുടെ സേവനകളെന്ന് പറയുമ്പോൾ ചില ആശുപത്രികളില് മതിയായ ജീവനക്കാരും മറ്റും ഇല്ലാത്തതുകൊണ്ടും കുറച്ചു പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങള് പിടിപ്പെടുന്നൊരു സ്ഥലം കൂടി ആണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ആളുകളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ കുറവു മൂലം മതിയായ ആൾക്കാരെ ചികിത്സിക്കാൻ ആളില്ലാണ്ട് വരുമ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്നുവെന്ന് പറയാം പിന്നെ നോക്കുകയാണെങ്കിൽ അഹല്യാ ആയുർവേദ മെഡിക്കൽ കോളേജും മറ്റ് അതിൻ്റെ ആശുപത്രിയും പാലക്കാട് ഉണ്ട് അതുപോലെ തന്നെ അഹല്യാ പ്രമേഹ ആശുപത്രിയും അഹല്യാ വിമൺ ആന്റ് ചിൽഡ്രൺ ആശുപത്രിയും പാലക്കാടുണ്ട് കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട ആരോഗ്യം സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ആണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ മറ്റ് സൗകര്യങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് വച്ചാൽ ഒരു സാധാരണക്കാരന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാൻ പറ്റുമോ എന്നതാണ് നമുക്കൊരു ചോദ്യം ഉന്നയിക്കാവുന്നത് കാരണം അത്യാവശ്യം നല്ല സാമ്പത്തികമായി നന്നായിട്ട് പൈസയുള്ളവർക്ക് മാത്രമാണ് സാമ്പത്തികമായി നല്ലൊരു ബാക്ക്ഗ്രൗണ്ടുള്ളവർക്ക് മാത്രമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോവാൻ സാധിക്കുക അവിടെ മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ അതിനനുസരിച്ചുള്ള പണവും മറ്റ് കാര്യങ്ങളുമുണ്ടാവും സർക്കാർ ആശുപത്രികളിൽ ആയിക്കോട്ടെ സേവനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ലഭ്യമാണ് എന്നാൽ പൂർണ്ണരീതിയിൽ ഇതായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം